എൻ്റെ ബൈക്കിൽ സ്ഥിരമായിട്ട് ഓരോ സ്ഥലത്തു യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതിൽ തീർച്ചയായും ആ യാത്രകൾ ഓരോന്നും ഞാൻ ആസ്വദിക്കാറുണ്ട് ബൈക്ക് യാത്രകൾ തീർച്ചയായും ഞാൻ ആസ്വദിക്കാറുണ്ട് വെല്ലുവിളി ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ചില പാതകൾ അല്ലെങ്കിൽ വഴികൾ ഏതൊക്കെയാണെന്നാണ് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴുണ്ടായത് അത്തരത്തിലൊരു ചോദ്യം വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് വയനാട് പോകുമ്പോളുള്ള താമരശ്ശേരി ചുരം ബൈക്കിൽ കയറുന്നതാണ് താമരശ്ശേരി ചുരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് നിന്നും താമരശ്ശേരിയിലേക്ക് താമരശ്ശേരി ടൗൺ കഴിഞ്ഞ് കുറച്ചു കഴിയുമ്പോഴേക്കും അടിവാരത്തെത്തും അടിവാരത്തു നിന്നു പിന്നെ മുകളിലേക്കുള്ള യാത്രയാണ് താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് പക്ഷെ അത് വയനാടൻ ചുരം എന്നും അറിയപ്പെടുന്നു ഈ താമരശ്ശേരി ചുരം അടിവാരത്തു നിന്നു മുകളിലേക്ക് കയറുമ്പോൾ ഒട്ടേറെ ഹെയർ പിൻ വളവുകളും കുത്തനെയുള്ള റോഡുകളുമാണ് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക മാത്രമല്ല ഇത് പ്രധാനപ്പെട്ട ഒരു ദേശീയ പാത കൂടി ആയതിനാൽ വലിയ വലിയ വാഹനങ്ങൾ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നുണ്ട് തീർച്ചയായും ഒരു ബൈക്ക് യാത്രികന് വെല്ലുവിളി നിറഞ്ഞിട്ടുള്ള ഒരു പാത തന്നെയാണ് താമരശ്ശേരി ചുരത്തിലൂടെ വായനാട്ടിലേക്കുള്ള യാത്ര കാരണം ഒട്ടേറെ വാഹനങ്ങളും ഹെയർ പിൻ വളവുകളും കുത്തനെയുള്ള റോഡുകളുമുള്ള താമരശ്ശേരി ചുരം തന്നെയാണ് ഞാൻ ബൈക്കിൽ സഞ്ചരിച്ചിട്ടുള്ളതിൽ വെല്ലുവിളി നിറഞ്ഞ ഒരു പാത